കലാലയങ്ങളിൽ ചിത്രരചനയെന്നു പറയുന്നത് അതിനൊരു പ്രത്യേക സ്ഥാനം നൽകി പരിഗണിക്കുന്നുണ്ടോയെന്നു ചോദിച്ചാൽ അങ്ങനെ ഒരു പരിഗണന നമ്മുടെ കലാലയങ്ങളിൽ നൽകുക കുറവാണ് പിന്നെ കൂടുതൽ ഗവൺമെൻ്റ് സ്കൂളുകളിലല്ലാതെ പ്രൈവറ്റായിട്ടുള്ള സ്കൂളുകളിൽ സി ബി എസ് സി മുതലായ സ്കൂളുകളിലാണ് കൂടുതലായിട്ടും ഈ ചിത്രരചന ഒരു ഒരു വിഷയമായിട്ടല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമായിട്ട് നൽകി പഠന പഠന കാലത്ത് പഠിപ്പിക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്നു പറയുന്നത് ഞാൻ പഠിച്ചത് ഗവൺമെൻ്റ് സ്കൂളിൽ തന്നെ അത്ര തന്നെ അത്രക്ക് പ്രാധാന്യം നൽകി ചിത്രരചന ക്കത്ര പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചിത്ര രചനയേക്കാളും മറ്റു വിഷയങ്ങൾക്കാണ് കൂടുതലായിട്ടും പ്രാധാന്യം നൽകുന്നത് ഇന്നീ ചിത്ര രചനയെന്നു പറയുന്നത് എൻ്റൊരു കുട്ടിക്കാലത്ത് എൽ പി അതായത് താഴ്ന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ചെ താഴ്ന്ന ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ള ക്ലാസ്സുകളുണ്ട് എൽ കെ ജി യു കെ ജി അങ്കനവാടി മുതലായ അങ്കനവാടി മുതലായ മുതലായ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ വെച്ചാണ് ഈ ചിത്രരചന പോലെയുള്ള ഇത് കൂട്ടുകൾ നട അതിനകത്തൊന്നുമില്ല ചിത്രരചന പോലെയുള്ള മുതലായ കാര്യങ്ങൾ അവിടെ അങ്ങനെയൊരു തലത്തിൽ വെച്ചാണ് നമുക്ക് വി വിദ്യാഭ്യാസ പരമല്ലെങ്കിൽ പോലും ആ ഒരു ആവശ്യത്തിലേക്ക് അതിൻ്റെ ഒരു തലത്തിലേക്ക് വരുന്നത് ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് അങ്ങനെ ചെറിയ ചെറിയ ചെറിയ ചെറിയ പ കോമിക്ക് ബുക്കുകളിൽ ഒക്കെ അതിൻ്റെ പടങ്ങൾ പകർത്തി വരക്കുക അല്ലെങ്കിൽ ചെറിയ പൂക്കളോ കായ്കളോ മുതലായവയായിരിക്കും ആദ്യം വരച്ചു തുടങ്ങുക പിന്നീടാണ് അതിനെ ഒരു ചിത്രങ്ങളിലേക്ക് പ പകർത്താനുള്ള ആദ്യമൊരു വട്ടം വരച്ച് തുടങ്ങുന്നത് പിന്നീട് വളർന്ന് വളർന്നു വരുമ്പോഴത് ഇപ്പോൾ വലുത് വലുതായി നല്ലൊരു ചിത്രത്തിലേക്കു മാറുകയാണ് പതിവ് ആദ്യ ആദ്യ കാലങ്ങളിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് വാസന വാസന കഴിവ് ജന്മസിദ്ധമാണ് അപ്പം ചിത്രം രചിക്കാനുള്ള വാസന ആദ്യം മുതൽക്കെ ആദ്യ കാലം മുതൽക്കെ തന്നെ ഒരു കു കുട്ടിക്ക് കൈ വരുന്നുണ്ട് അങ്ങനെ കൈ വന്ന് ആ കുട്ടി ചെറുതായിട്ട് ഒരു പെ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന എന്ത് സാധനം വെച്ചോ ഭിത്തിയിലോ മറ്റെവിടെയെങ്കിലും കോറി വരക്കുകയാണ് പതിവ് പിന്നീടത് വളർന്ന് വളർന്ന് സ്കൂളിൽ തലത്തിലേക്കെത്തിക്കുക എത്തുമ്പോൾ പൂവുകളും കായ്കളും അല്ലെങ്കിൽ ആദ്യം വരച്ചു തുടങ്ങുന്നത് രണ്ട് മല കു അതിൽ സൂര്യൻ ഒരു വീട് അങ്ങനെ മരങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ സാ സാഹചര്യങ്ങളിലൂടെയാണ് ഈ ചിത്രരചന വളർന്നു വരുന്നത് പിന്നെയീ ചിത്രങ്ങൾ വരച്ച് തുടങ്ങുന്ന ആ ചിത്രങ്ങൾ പിന്നീട് ആ പ്രോസസ്സ് സ്കൂൾ തലത്തിലൊക്കെയാകുമ്പോൾ കൂടുതൽ പ്രോത്സാഹനങ്ങളതിനു ലഭിക്കും അങ്ങനെ ആ ഒരു ചിത്രങ്ങൾ കൂട് കൂടുതലായിട്ടും ബുക്കുകൾ സ്കൂൾ തലത്തിൽ ചിത്രങ്ങൾ വരച്ച് മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് ഛായാ ചിത്രങ്ങൾ ഈ ചായം തേച്ചുള്ള ചിത്രങ്ങളല്ലെ പെൻസിൽ മുതലായവയുപയോഗിച്ചു കൊണ്ടുള്ള രചന ചിത്രരചന മത്സരങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് ഇതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ആയിട്ടും കുട്ടികൾ ചിത്രരചനയിലേക്ക് കടന്നു വരുന്നുണ്ട് അങ്ങനെ ഈ ജന്മസിദ്ധമായിട്ടുള്ളൊരു കലാവാസനയുള്ള കുട്ടി ഈ ചിത്രരചന രംഗത്തേക്ക് കൂടുതലായിട്ടും കടന്നു വരിക സ്വാഭാവികമാണ് സ്കൂൾ തലത്തിലങ്ങനെ പ്രോത്സാഹനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പ്രോത്സാഹനം കിട്ടുകയാണെങ്കിൽ ചെറിയ ചെറിയ ബുക്കുകളിലൂടെ ആണെങ്കിലതിനകത്തുള്ള ചിത്രങ്ങൾക്ക് പേ ചിത്രങ്ങൾക്ക് പെയിൻറ്റുകൾ അല്ലെങ്കിൽ ചായം നൽകുകയും അങ്ങനെയൊക്കെ ചെയ്തു കൊണ്ട് കുട്ടികൾ അതിൽ മികവ് പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടി ആ ഒരു ചിത്രകലാ രംഗത്ത് ശോഭിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റൊരഭിപ്രായം ചിത്ര രചന സ്കൂളിലൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകി അല്ലെങ്കിൽ സ്കൂളുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയൊരു വിഷയമായി പഠിപ്പിക്കുകയാണെങ്കിലത് കൂടുതൽ കലാകാരന്മാരെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കലാകാരന്മാർക്ക് പ്രചോദനം നൽകുന്ന ഒരു ഒരു വിഷയമായിട്ട് മാറും കാരണം നമ്മുടെ രീതി വെച്ച് പഠി കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാറ്റിനും എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കണമെന്നില്ല എന്നാൽ അതിനും നമ്മുടെ ഡാൻസൊക്കെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകളുമുണ്ട് അതുപോലെ തന്നെ ഈ ചിത്രങ്ങൾക്കും അതേപോലെയൊരു പ്രാധാന്യം നൽകുകയാണെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ ചിത്രങ്ങൾ വരക്കുകയും പെയിൻ്റ് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളൊക്കെ ഭാവിയിൽ ഉണ്ടാകും അവർ അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളരാൻ വേണ്ടി ഈ സ്കൂൾ തലത്തിലുള്ള ഈ ചിത്ര ചിത്രങ്ങൾ ചിത്രരചന പഠിപ്പിക്കുന്നതു മൂലം സാധിക്കുന്നു കുട്ടിക്കാലത്തൊക്കെ കൂടുതലായിട്ടും ചെറിയ ചെറിയ ചിത്രങ്ങൾ വരച്ചു വരച്ചാണ് എല്ലാവരും പഠിക്കുക അങ്ങനെ അത് പല വലിയ വലിയ ചിത്രങ്ങളിലേക്ക് അതിൻ്റെ അതിൻ്റെ വിവരണങ്ങളിലേക്കല്ലെങ്കിൽ അതിനെ ഒരു മുഖ മുഖം വരക്കുന്നതിലേക്കോ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക ചിത്രമാക്കി മാറ്റുന്നതിലേക്കോ സ്വന്തമായി ഒരു ക കലയെ പോഷിപ്പിക്കാൻ പരിപോഷിപ്പിച്ച് വളർത്തുന്നതിലേക്കൊക്കെ കൊണ്ടു വരാനീ സ്കൂൾ തലത്തിലുള്ള ചിത്രരചന വഴി അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നതു വഴി സാധിക്കും എന്നാണ് എൻ്റൊരു നിഗമനം എന്നു പറയുന്നത്